എൻ്റേതെന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൻ പ്രദേശമാണ് അപ്പം അവിടെ ഒരു സഞ്ചാര വിനോദ വിനോദസഞ്ചാരികൾ നേരിടുന്ന വെല്ലുവിളിയെന്ന് പറയുന്നത് മെയിനായിട്ടും ഗതാഗതം ആണ് ഒരു കുഞ്ഞു ഗ്രാം ആയതുകൊണ്ട് തന്നെ ഗതാഗതത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതായത് പ്രൈവറ്റ് വാഹനങ്ങൾ പിടിച്ചിട്ട് പോകേണ്ടി വരും പബ്ലിക്ക് വാഹനങ്ങൾ കുറവാണ് ഇപ്പം ബസ് സൗകര്യം എന്നു വെച്ചാൽ വളരെ കുറവാണ് കാരണം ഒരു റൂട്ടിലേക്കുള്ള ബസ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടു മണിക്കൂർ ഇടവിട്ടിട്ടൊക്കെ ഉണ്ടാകും അതാണ് എൻ്റെ സ്ഥലം സന്ദർശിക്കുന്ന ഒരു വിനോദസഞ്ചാരി നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ബാക്കി കാലാവസ്ഥ ആയാലും താമസം ഭക്ഷണമൊക്കെ ആയാലും വളരെ നല്ലതാണ് നല്ല അഭിപ്രായമാണ് അവർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് കിട്ടിയ ഒരു അഭിപ്രായം അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ഈ ഗതാഗതമാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാരണം പബ്ലിക്ക് വാഹനങ്ങൾ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങൾ പിടിച്ചു പോകേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇപ്പോൾ ഓട്ടോ ആയാലും അതുപോലെ തന്നെ ക്യാബ് ആയാലും ബുക്ക് ചെയ്ത് പോകേണ്ടി വരുന്നുണ്ട് ടാക്സി എടുത്തു പോകേണ്ടി വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് എന്താ പറയുക ചിലവ് കൂടുതലായിട്ടുള്ള കാര്യമാണ് പബ്ലിക്ക് വാഹനങ്ങൾ കുറവുള്ളത് ഒന്ന് ഗതാഗത സൗകര്യം കുറവായത് കൊണ്ട് തന്നെയാണ് ചില വെല്ലുവിളി എന്ന് പറയുന്നത്